സെൻറ്റ് മേരീസ് ചർച്ചിലേ ഫാദർ ആണോ ഈശോ മിശിഹായിക്ക് സ്തുതിയാരിക്കട്ടേ ഞാൻ എൻ്റെ മോളുടെ ഒരു വെഡിങ്ങിൻ്റെ ഒരു പ്ലാൻനേ കുറിച്ച് പറയാൻ വേണ്ടി വിളിച്ചതാണേ അവൾക്ക് ഈ മാസം ട്വൻറ്റി നയൻത്തിനാണ് വെഡിങ് ഫിക്സ് ചെയ്തതേ അപ്പോൾ നമുക്ക് പള്ളിയിൽ വെച്ച് നടത്താമെന്ന് വിചാരിച്ചിട്ടായിരുന്നു അപ്പോൾ അവിടെ എന്തെങ്കിലും ബുക്കിങ്ങോ കാര്യങ്ങളോ ഉണ്ടോന്നു നോക്കിട്ടൊന്ന് പറയോ ഞാൻ ഹോൾഡ് ചെയ്യാം ഓക്കേ ഇല്ലല്ലേ അപ്പോൾ നമുക്ക് പറ്റിയ ടൈം എപ്പോഴാണച്ചോ ആണോ ആ ആ ആ ആ ട്വൻറ്റി നയൻത്തിന് ഓക്കേ ഓക്കേ ഓക്കേ ഓക്കേ ടൈം നോക്കിട്ട് പത്ത് ടു പതിനൊന്ന് ല്ലേ ഓക്കേ അച്ചോ അപ്പോൾ നമുക്ക് കുർബാനയാണോ അകത്ത് പാട്ട് കുർബാനയാണോ അതോ സാധാ കൂർബാനയാണോ ആ ഓക്കേ ഓക്കേ പാട്ട് കൂർബനയാല്ലേ അപ്പോൾ അപ്പോൾ നമുക്ക് കുറെ ടൈം എടുക്കുമോ അതായത് പത്ത് ടു പതിനൊന്നല്ലേ അപ്പോൾ നമ്മൾ എത്ര മണിയാകുമ്പോൾ പെണ്ണും ചെക്കനൊക്കേ എത്തേണ്ടി വരും

ആണല്ലേ ആ അപ്പോൾ കുഴപ്പമില്ലാല്ലേ ആഹാ ആഹാ ആണല്ലേ അപ്പോൾ കുഴപ്പമില്ല ഫുഡൊക്കേ നമുക്ക് അവിടുന്ന് തന്നെ കൊടുക്കാൻ പറ്റുമോ അങ്ങനെന്തേലും സൗകര്യങ്ങൾ കാര്യങ്ങളോ ഉണ്ടോ ഹാളിലെങ്ങാനും കൊടുക്കാമല്ലേ അപ്പോൾ നമുക്ക് ഓ ഓഡിറ്റോറിയത്തിന് എത്ര പേ ചെയ്യേണ്ടത് ആണോ ആ എന്നാൽ അങ്ങനെയൊന്ന് ഒന്ന് ചോദിച്ചിട്ട് വിളിക്കാമോ കാലത്തിനാരുന്നപ്പോൾ ഇന്നെന്താ ട്വൻറ്റി റ്റു ആയില്ലേ

ഓക്കേ അങ്ങനെ ആണേൽ നിങ്ങളൊന്നു ആ ആ ഓക്കേ ഓക്കേ ഓക്കേ താങ്ക് യൂ അച്ഛാ